അതിന് തുന്നലിനെ തുന്നല് പഠിക്കാൻ വേണ്ടീട്ട് പോയിട്ടുണ്ട് അല്ല പിന്നെ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയിട്ട് നമ്മൾ പഠിക്കാറുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒരു യൂട്യൂബ് ചാനല് നമ്മള് നോക്കി പഠിക്കാറില്ല എല്ലാ യൂട്യൂബ് ചാനലുകളിലും നമുക്ക് ഏറ്റവും യോജിച്ചത് ഏതാണെന്ന് ആ യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് നമ്മൾ പഠിക്കാറുള്ളത് ഇപ്പോൾ നമുക്ക് ഏതാണോ നല്ലത് എന്ന് തോന്നുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് അത് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അത് നോക്കും അല്ലാതെ നമ്മൾ ഒരാളെയും പ്രത്യേകിച്ച് ആയിട്ട് നമ്മള് ഇതാക്കാറില്ല പിന്നെ അതില് നിന്ന് നമ്മള് കുറേ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ പണ്ട് പഠിച്ച രീതിയിൽ നിന്ന് ഇപ്പോഴത്തെ രീതിയിലേക്ക് വരുമ്പോൾ കുറേ കുറേ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടു വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ എന്താണ് അത് നോക്കി നമ്മൾ പഠിക്കാറുണ്ട് യൂട്യൂബ് നോക്കി തന്നെയാണ് നമ്മള് പഠിക്കാറുള്ളത് പുതിയ പുതിയ ടെക്നിക്കുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും പുതിയ രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ജസ്റ്റ് സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത് ആ രീതിയിലൊക്കെ നമ്മള് മാറ്റാറുണ്ട് പിന്നെ നമ്മള് നമ്മള് പണ്ടത്തെ രീതിയിൽ നിന്ന് നമ്മൾ കുറേ ആർട്ട് വർക്കുകള് ഡെക്കറേഷൻ ചെയ്യേണ്ട കാര്യങ്ങള് എങ്ങനെയാണ് അതിൽ എങ്ങനെയാണ് ഡിസൈനിങ് ചെയ്യുന്നതും മറ്റ് ബീഡ് വർക്ക് ആണെങ്കിലും അങ്ങനെ സ്റ്റിച്ചിങ് നമ്മുടെ ഡിസൈൻ ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബ് നോക്കിയിട്ട് തന്നെ പഠിക്കുന്നുണ്ട് അപ്പോൾ മെല്ലെ മെല്ലെ മെല്ലെയാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് പഠിച്ച് എടുത്തത് നമ്മള് ഈ ഇത് നമ്മള് എന്നിട്ട് നമ്മള് ചെയ്തു സ്റ്റിച്ച് ചെയ്ത് നമ്മള് നമ്മള് ഇട്ടു കാണിക്കുമ്പോൾ പുറമേ ഉള്ളവർക്ക് അത് കാണുമ്പോൾ ഭയങ്കര എന്താ ഇഷ്ടപ്പെടാറുണ്ട് അപ്പോൾ അവര് അത് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതേ രീതിയിൽ നമ്മള് അടിച്ചു കൊടുക്കുമ്പോൾ അത് സമൂഹത്തിന് വളരെ നല്ലതാണ് നമ്മള് അങ്ങനെയാണ് ഞാൻ എൻ്റെ ഞാൻ എൻ്റെ ഡ്രസ്സുകൾ ഞാൻ തന്നെ ഇട്ടിട്ടാണ് മറ്റുള്ളവരിലേക്ക് എന്ത് എത്തിക്കുന്നതും അവര് വഴിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ആ ഒരു നമ്മൾ അവരിലേക്ക് അവരിലേക്ക് എത്തിക്കുമ്പോൾ അവര് അവർ എന്ത് ചെയ്യും നമ്മുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ എന്ത് ചെയ്യും അത് ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രോത്സാഹിപ്പിക്കും അപ്പോൾ നമ്മള് അത് വീണ്ടും ചെയ്തു കൊടുക്കും അങ്ങനെ അത് എല്ലാവരുടെയും ഏകദേശം നമ്മുടെ എല്ലാ അവിടെയുള്ള നമുക്ക് അറിയുന്ന ആൾക്കാരിലേക്കൊക്കെ നമുക്ക് എത്തിക്കാൻ ഞാൻ അങ്ങനെയാണ് എന്ത് ഞാൻ സാധാരണയായിട്ട് ഇത് ചെയ്യാറുള്ളത് അത് നല്ല രീതിയിൽ എന്താണ് നമ്മള് ഞാൻ ഉപയോഗിക്കാറും ഉണ്ട് നല്ല രീതിയില് അവർക്ക് അത് ചെയ്തു കൊടുക്കാറുണ്ട് നല്ല രീതിയില് നമ്മള് അടിച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷവും നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷവും വലുതു തന്നെയാണ് ഞാൻ ആ രീതി ഞാനിത് പഠിക്കാൻ തുടങ്ങിയതിനു ശേഷം ഞാൻ അങ്ങനെ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അല്ല മറ്റുള്ളവരുടെ സഹായം ഒന്നുമില്ലാതെ യൂട്യൂബ് നോക്കിയിട്ടും ഫോൺ നോക്കിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ഇവിടെ എത്തിയത്